ഉം മാഡം എന്താണ് വേണ്ടത് ബാഗ് എത്രാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിക്കാണ് ആ ഇപ്പം ജസ്റ്റ് ചേർന്നിട്ടേ ഉള്ളോ എൽ കെ ജി ആണോ ആ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ മുകളിലാണ് വരൂ ആ ആ ആ കാണിക്കാം കാണിക്കാം കാണിക്കാം ഇതാവുമ്പോൾ മുന്നൂറ്റമ്പത് രൂപ ആ നോക്കിക്കോളൂ ഈ റോ ഫുൾ അങ്ങനത്തെയാണ് കാർട്ടൂൺ പിക്ച്ചേഴ്സ് ആണ് നോക്കിയിട്ട് പറഞ്ഞോളൂ ആ മുന്നൂറ് മുതൽ മുകളിലേക്ക് ഉണ്ട്

ഡിസ്കൗണ്ട് നമ്മൾ എല്ലാ പ്രോഡക്റ്റിനും ഇപ്പം സ്കൂൾ ഓപ്പണിങ്ങ് ആയതുകൊണ്ട് ഒരു ഫൈവ് പെർസെൻറേജ് ഡിസ്കൗണ്ട് ഉണ്ട് സ്കൂബി ഡേ ബാഗ് ആണെങ്കിൽ അതിൽക്കൂടെ ഒരു ടോയ് കിട്ടും കുട്ടികൾക്ക് പിന്നെ പിന്നെ വേറെ ഇതിൻ്റെ കാർട്ടൂൺ പിക്ച്ചേഴ്സിൻ്റെ കൂടെ ഇല്ല സ്കൂബി ഡേയുടെ കൂടെയാണ് അത് ആ സ്കൂബി ഡേയുടെ വരൂ ഇങ്ങോട്ട് നോക്കിക്കോളൂ ആ ഇതാണ്

അല്ല ഇല്ല സെയിം ടോയ് ആണ് കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇല്ല നമ്മൾ അല്ല കൊടുക്കുന്നത് ബാഗിൻ്റെ ഒപ്പം തന്നെ വരുന്ന സ്കൂബി ഡേ ആവുമ്പം നാനൂറ് ആണ് വരുന്നത് ഇല്ല ചെരുപ്പ് കുട അതേ ഉള്ളൂ നമുക്ക് മറ്റ് സംഗതി ആ ഷൂ ഉണ്ട് ഏ ഏത് ഇ തരം ഷൂ ആണ് മാം വേണ്ടത് ഓക്കെ ആ സോക്സ് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം ആ റെയിൻ കോട്ട് അമ്പ്രല്ല ഒക്കെ ഉണ്ട് ആ എല്ലാ സൈസിലുള്ളതും ഉണ്ട് ആ ഉണ്ട് ഉണ്ട് ആ ഇത് നോക്കിക്കോളൂ ഇത് നോക്കിക്കോളൂ ഇത് നോക്കിക്കോളൂ ഇതാ ഡോറ ബുജ്ജിയുടെ എന്നാൽ ഇത് പാക്ക് ചെയ്തേക്കട്ടേ

ഓ താങ്കളെ ബിൽ ത്രീ എയ്റ്റി ആണേ ആ ബാക്കി അറുനൂറ് ഓക്കെ താങ്ക് യു മാം താങ്ക് യു ആ ഇതാ